ഹലോ എനിക്ക് ഒരു സഹായം ചെയ്തു തരാമോ ഞാൻ അവധിക്കാലത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ് എനിക്ക് ട്രെയിൻ ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ട എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിയില്ല എന്നാൽ ഞാൻ അടുത്ത മാസം അഞ്ചാം തീയ്യതിയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്ന്

ഒറിജിനൽ സ്റ്റേഷൻ ചെങ്ങന്നൂർ ആണ് ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ ഡൽഹിയാണ് യാത്ര തീയതി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മുൻഗണനാ ക്ലാസ്സ് ഏ സി ചേർ കാർ എടുത്തോളുക എന്നുള്ള വിവരങ്ങൾ തരുന്നു